ഹലോ അതെയല്ലോ ഓക്കെ ഇതെവിടെ നിന്നായിരുന്നു വിളിക്കുന്നത് വയനാട്ടില്നിന്ന് ഓക്കെ ഡയറക്റ്റായിട്ട് വന്നു പഠിക്കാനായിട്ടാണോ അതോ ഓൺലൈൻ നോക്കാനായിട്ടാണോ പഠിക്കാനായിട്ട് ഓക്കെ ഏത് ഏത് ഡാൻസിലായിയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ ട്രഡീഷണലായിട്ട് എല്ലാ ഡാൻസും പഠിപ്പിക്കുന്നുണ്ട് കഥകളിയുണ്ട് കുച്ചിപ്പുടിയുണ്ട് മോഹിനിയാട്ടമുണ്ട് ഓട്ടൻതുള്ളലുണ്ട് തിരുവാതിരക്കളിയുണ്ട് മാർഗംകളിയുണ്ട് ഒപ്പനയുണ്ട് അങ്ങനെ കുറേ ഡാൻസ് ഫോംസ് ഉണ്ട് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ എല്ലാത്തിനും ഡിഫറെൻറ് ഫീസ് റേറ്റെല്ലാം ഡിഫറന്റായിരിക്കും ഇതിനു മുന്നേ ഡാൻസിനെപ്പറ്റി കുഞ്ഞില് ചെറുപ്പത്തിലൊന്നും പഠിച്ചിട്ടില്ല ആദ്യമായിട്ടാണോ ഓക്കെ എന്താ എന്തേലേലും പ്രത്യേകിച്ച് താല്പര്യമുണ്ടോ എന്തിലെങ്കിലും ഒന്നിനുമില്ല അങ്ങനെെയാണെങ്കില് ഒരു ലേഡി ആയതുകൊണ്ടും ഞാൻ ഭരതനാട്യം അല്ലെങ്കില് മോഹിനിയാട്ടമൊക്കെയേ പറയത്തുള്ളൂ ഫീസ് ഡെ്യിലി വന്നാണെങ്കിൽ നമ്മള്ക്കൊരു ടെൻ തൗസന്റിനുള്ളിൽ ഓക്കെ ആക്കാം അല്ലാണ്ട് പാർട്ട് ടൈമായിട്ട് ഇങ്ങനെ നിങ്ങള്ക്ക് ഫ്രീ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് എല്ലാം ആണെന്നല്ലേ പറഞ്ഞത് പാർട്ട് ടൈമായിട്ടിങ്ങനെ ഹോളിഡേയ്സിലൊക്കെ ഒന്ന് പഠഇക്കാനായിട്ടാണെങ്കിൽ അത് ഡെയ്ലി നമുക്കൊരു റേറ്റ് ഫിക്സ് ചെയ്യാം അത് എത്ര മണിക്കൂര് മണിക്കൂറേത്തേക്കാണ് അതു നിങ്ങള് വന്നുകഴിയുമ്പോള് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം ഉള്ളൂ അല്ലേ അപ്പോള് നമുക്ക് ഓൺലൈൻ അറ്റെന്ഡ് ചെയ്യാം കുഴപ്പമില്ല യൂട്യൂബ് ചാനലുണ്ട് കുഴപ്പമില്ല ആ നമുക്ക് നേരിട്ടു കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഒരു ഇതു മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരു കുഴപ്പവുമില്ല ഓൺലൈനില് എല്ലാം നമ്മള് ഗ്രൂമിറ്റിക്കൂടെ നിങ്ങള്ക്കു പ്രത്യേകം ഇൻഡിവിജ്വലായിട്ട് ഓരോ ടീച്ചർമാര് കാണും അത് അതെ അതെ അതുകൊണ്ട് ഒരു അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ ഞാനും വയനാട്ടില്ത്തന്നെ എൻ്റെ ഈ സ്കൂൾ അതുകൊണ്ട് വന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കില് അതായിരിക്കും കുറച്ചുംകൂടെ ഞാൻ റെക്കമെന്റ് ചെയ്യുക ഓക്കെ അപ്പോള് വരുമ്പോള് വിളിക്കൂ